മെയിനായിട്ട് ഞാൻ സ്റ്റേജിനു മുമ്പിൽ പാടാറില്ല പിന്നെ പ്രസംഗിക്കാൻ കയറും ഇപ്പം സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കയറുമ്പം വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും വിറയ്ക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ബ്രത്ത് എടുക്കുക അതായത് ഒന്ന് ശ്വാസം നല്ല രീതിയിൽ അകത്തോട്ട് വലിച്ചിട്ട് പതുക്കെ വിടും അപ്പോൾ നമുക്ക് ഏകദേശം കുറേ പേടിയും കാര്യങ്ങളൊക്കെ മാറും പിന്നെ കയറി കുറച്ചു കഴിയുമ്പോൾ തന്നെതാനെ നമ്മുടെ പേടിയൊക്കെ കുറയും അതാണ് മെയിൻ വിഷയം പിന്നെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പോകുന്ന കാര്യം പണ്ടേ ചെയ്തു തീർത്തിട്ട് പോവുക എന്നുള്ളതാണ് മെയിൻ കാര്യം പാടുമ്പം പരിഭ്രമമോ പേടിയോ തോന്നാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേജിൽ കയറിയാൽ അങ്ങനെ ഒത്തിരി ഒന്നും പാടാറില്ല ഞാൻ പണ്ടെങ്ങാനും കുഞ്ഞിലേ ഒക്കെ പാടിയിട്ടുള്ളതേ ഉള്ളൂ പിന്നെ ഞാൻ പാട്ട് കേൾക്കും ഇഷ്ടംപോലെ കേൾക്കും ഓൾമോസ്റ്റ് തമിഴും മലയാളവും തന്നെയാണ് എറ്റവും കേൾക്കുന്ന പാട്ടുകൾ ഹിന്ദി പാട്ട് കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ പിന്നെ ഇതേപോലെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെയാർ കേൾക്കാനാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ കേൾക്കാനുള്ള അതുപോലെ പാടാറുള്ള പേടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് പാട്ടു പാടി ഇങ്ങനെ സ്ഥിരം വിടുന്നുണ്ട് എല്ലാറ്റിനും എൻ്റെ പാട്ടിനെ കുറിച്ച് നല്ല ധാരണയാണ് അതുകൊണ്ട് ആരും എൻ്റെ പാട്ട് പാട്ടിനെ പാട്ടുപാടാൻ കയറ്റാറില്ല പിന്നേ പിന്നെ പറയുകയാണെന്നു പറഞ്ഞാൽ അത്യാവശ്യം കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ പാട്ടു പാടുന്നത് അതൊക്കെ അത്യാവശ്യം കുറെ വട്ടം ഞാൻ മാത്രമല്ല എല്ലാവരും പാടുന്നുണ്ട് കൊട്ടി പാടുക അതുപോലെ തന്നെ എനിക്കും മെയിനായിട്ടും എറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് പാട്ടുകളാണ് ഇപ്പം ഞാൻ പാടുകയാണെങ്കിൽ തന്നെ പഴയ തമിഴ് പാട്ട് പഴയ തമിഴ് പാട്ട് വരും അതുപോലെ തന്നെ സൂര്യയുടെ ഇടക്കാലത്ത് വന്ന അയൻ വാരണം ആയിരം പോലെയുള്ള സിനിമയിലെ പാട്ടുകൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പേടി വന്നാൽ മെയിൻ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആൾ ഈസ് വെൽ ആൾ ഈസ് വെൽ പിന്നെ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ബ്രത്ത് എടുക്കുക അത് ഒരു കുറച്ചുനാളോടെ പ്രാക്ടീസ് ചെയ്തു വരുമ്പം നമുക്ക് തന്നെയാകും അപ്പം ടെൻഷനോ അല്ലെങ്കിൽ പേടിയോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഡീപ്പായിട്ട് ഒരു ബ്രത്ത് എടുത്ത് വിടുക അപ്പം പകുതി കാര്യം അപ്പം തന്നെ തീരും അപ്പം അത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയുകയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ